തീർച്ചയായും ഒരു ഗ്രാമീണ സമുദായത്തിലെ പരമ്പരാഗതമായ നൃത്തരൂപങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വളരെയധികം തന്നെയാണുള്ളത് കാരണം ഒരു ഗ്രാമത്തിലെ പരമ്പരാഗതമായ ആചാരങ്ങൾ അല്ലെങ്കിൽ നൃത്തരൂപങ്ങൾ എന്നിവയൊക്കെ ആ ഒരു ഗ്രാമത്തിൻ്റെ പൂർവികർ ആയിട്ട് തുടങ്ങിവച്ച കാര്യങ്ങളും അതുപോലെത്തന്നെ ആ ഒരു ഗ്രാമത്തിൻ്റെ ഇംപോർട്ടൻസും ഒക്കെയാണ് പുറമേ വിളിച്ചോതുന്നത് അപ്പോൾ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ഡാൻസ് ഫോംസോ ആയിക്കോട്ടെ നമുക്ക് കേരളത്തിൻ്റെ തന്നെ കേരളത്തിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിക്കാണ് അത് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് പടയണി തെയ്യം പോലുള്ള അനുഷ്ഠാനകലകളും നമുക്ക് ഇന്ന് ലോകമെമ്പാടും അറിയുന്ന അല്ലെങ്കിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൻ്റെ ഭാഗമായി വരെ മാറാൻ കെൽപ്പുള്ള മാറിയ കലാരൂപങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ് അത് ഒരു ഗ്രാമത്തിലായിക്കോട്ടെ ഗ്രാമത്തിൻ്റെ ആ ഒരു എഫേർട്ട് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഇംപോർട്ടൻറ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് ഇങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് അവരത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു ഗ്രാമത്തിൻ്റെ മുഖമുദ്രയായിട്ട് ഇത് മാറാനുള്ള കെൽപ്പ് വരെയുണ്ട് അങ്ങനൊരു ഗ്രാമത്തിന് മുഖമുദ്രയാവുന്നത് വഴി അത് കേരളത്തിൻ്റെ തന്നെ മുഖമുദ്രയായി മാറുകയും പിന്നീട് ഇന്ത്യയിലും ലോകത്തിലും തന്നെ അത് അറിയപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു പരമ്പരാഗതമായ നൃത്തരൂപങ്ങൾ ആ നൃത്തരൂപങ്ങൾ കാഴ്ച്ചവെച്ചുവരുന്ന കലാകാരന്മാരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ഈ കല പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ചുമതലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേക സമുദായങ്ങളിലെ ആൾക്കാരാവും ഇങ്ങനെയുള്ള അനുഷ്ഠാനകലകൾ നടത്തിവരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ജീവിതം നിലനിന്ന് പോവാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അതുവഴി ഈ ഒരു കലയെ പ്രോത്സാഹിപ്പിക്കുക ഈ കലയ്ക്ക് ലോകമെമ്പാടും ഒരു അറ്റൻഷൻ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് വളരെ ഇംപോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെത്തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും ആയിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് അതൊരു ടൂറിസം ജന ടൂറിസത്തിലെ എക്കണോമിക് ജനറേഷനുവേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തന്നെ നമ്മുടെ തന്നെ നാടിൻ്റെ ഒരു മുഖമുദ്രയായിട്ടോ ഒക്കെ മാറ്റാനായിട്ട് കെൽപ്പുണ്ട് അപ്പം ഇത് വളരെയധികം ഇംപോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്ന് ഞാൻ കരുതുന്നു